ലൈബ്രറിയിൽ ഒന്നും ഞാൻ പോയിട്ടൊന്നുമില്ല പോകാറൂമില്ല ഒന്നാത് സമയമില്ല പിന്നെ പുസ്തകങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഞാ വായിക്കും അത്രേ ഉള്ളു അതില് പിള്ളേരൊക്കെ ചിലപ്പോൾ സ്കൂളീന്ന് നല്ല നോവല്കളൊക്കെ കൊണ്ടെരും പിള്ളേര് സ്കൂളിൽ പഠിക്കുമ്പോൾ കൊടുത്തുവിടും ടീച്ചർമ്മാരൊക്കെ നിങ്ങള് പോയി വായനാശീലം നല്ലതാ അതുകൊണ്ട് നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്ത് വിടും അന്നേരം അവരവരുടെ വെച്ചിട്ട് പോകുമ്പോൾ ഞാനതെടുത്ത് വായിച്ച് നോക്കും ജോലിയൊക്കെ കഴിഞ്ഞട്ടതെടുത്ത് മറിച്ച് നോക്കും ആദ്യമൊക്കെ വായിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല പക്ഷെ തുടർന്ന് അങ്ങോട്ടങ്ങോട്ട് വായിച്ചൊക്കെ പോകുമ്പോൾ നമുക്കത് തീർക്കണമെന്നുള്ളൊരു ഒരു ഒരു ത്വര ഉണ്ട് അന്നേരം ഞാനെടുത്ത് വായിക്കും അല്ലാതെ എനിക്ക് ലൈബ്രറിയിലോട്ട് പോയിരുന്ന് വായിക്കാനോ പുസ്തകങ്ങളെടുത്ത്കൊണ്ട് വന്ന് പിന്നെ വായിച്ചിട്ട് അതിനും വേണ്ടിയുള്ള സമയം ഒന്നും എനിക്കില്ല പിന്നെ വീട്ടില് വലിയ പുസ്ത ലൈബ്രറി ശേഖരമൊന്നും പുസ്തകങ്ങളുടെ ആ ഒരു വലിയോർ വലിയ ശേഖരമോ അങ്ങനെയൊന്നു എനിക്കില്ല പിന്നെ കാണുന്നത് ഇഷ്ട്ടപ്പെട്ട നോവലൊക്കെ ആണെങ്കിൽ ചെമ്മീൻ അങ്ങനെ ചെമ്മീന് പിന്നേ അങ്ങനെയൊക്കെയുള്ള ചില നോവലുകളൊക്കെ ഇഷ്ടമാണ് അതൊക്കെ ഞാ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് പൂർത്തീകരിച്ചിട്ടൊന്നുമില്ല വായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലൊ മല ഇത് കുഞ്ഞുങ്ങളുടെ അമർ ചിത്രകഥയൊക്കെ എനിക്കിഷ്ട്ടമാണ് ബാലരമ ബാലമംഗളം പിന്നെ അത് അത് ബോബനും മോളിയും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഞാൻ അത് വായിച്ചിട്ടുണ്ട് പിന്നേ ഇത് ശിക്കാരി ശംബു അത് പോലത്തെ ഉള്ള കുഞ്ഞ് കുഞ്ഞ് അമർ ചിത്രകഥയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ വായിക്കും പണ്ട് ഞാൻ എട്ടിലും ഒമ്പതിലും പത്തിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ബന്ധുവിൻ്റെ വീട്ടീൽ നിന്നും പോയി കെട്ട്കണക്കിന് ബാലരാമകള് എടുത്തുകൊണ്ട് വന്ന് ഞാനത് വായിക്കു എൻ്റെ അമ്മാച്ചൻ്റെ മകൻ കൊണ്ടുവന്ന് തരുമായിരുന്നു അത് അവൻ ഇഷ്ട്ടം പോലെ കൊണ്ടുവന്ന് തരുമ്പോഴത്തേനും ഞാനതെല്ലാം വായിച്ചിട്ട് അങ്ങ് തിരിച്ച് കൊടുക്കും പിന്നവൻ തിരിച്ച് വീണ്ടു അതുപോലെ അങ്ങനൊരു ബാലരമ ശേഖരണമുണ്ടെന്ന് അല്ലാതെ ഈ വലിയ ലൈബ്രറി ഉള്ള ശേഖരണമൊന്നും എനിക്ക് ഇല്ല അതിന് എനിക്കറിയത്തുമില്ല പിന്നെ ഇതുപോലെ പെട്ടെന്ന് എന്തേലും കാണുന്ന പുസ്തകങ്ങളൊക്കെ എടുത്ത് വച്ച് വായിക്കും അതില് നല്ല നോവലുകളാണെങ്കിൽ വായിച്ചിട്ട് പിള്ളേർക്കതങ്ങ് തിരിച്ച് കൊടുക്കും അത്രയെ ഉള്ളു പിന്നെ വായിക്കാൻ ഇഷ്ടമാണ് അത്രേ ഉള്ളു അല്ലാതെ വലിയ വൻമ്പൻ ശേഖരമോ വലിയ പുസ്തക ശേഖരമോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ അതിനെ കുറിച്ച് വായന പൊതുവേ അങ്ങ് സ്ഥിരമങ്ങ് ജീവിതത്തില് വലിയൊരു ഒഴിച്ച്കൂടാൻ പറ്റാത്തൊര് അവസ്ഥ അങ്ങനെയൊന്നുമില്ല കിട്ടിയാൽ വായിക്കും സമയമൊക്കെ ഉണ്ടെങ്കിലും അതിനെ കുറിച്ചുവൊക്കെ പറ്റുമെങ്കിലൊക്കെ സമയമോ സന്ദർഭമോ ഒക്കെ ഒത്തുവരുവാണെങ്കിൽ ഇത്പോലെ ചുമ്മാതെ ഒന്ന് കിടക്കുമ്പോൾ ഒരു പുസ്തകകമൊക്കെ കിടക്കുവാണെങ്കിൽ എടുത്ത് മറിച്ച് നോക്കും എന്നേ ഉള്ളു അല്ലാതെ ഭയങ്കര ഒര് ശേഖരണവും ലൈബ്രറി ശേഖരണമൊന്നും വീട്ടിലില്ല അതിനുള്ള സമയവും ഇല്ല അത്രേ ഉള്ളു